സൈക്കിളോടിച്ച് തുടങ്ങുന്നവർക്ക് സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഹെൽമറ്റ് വാങ്ങാതിരി ഈ ഹെൽമറ്റ് എന്തോ ഒരു ഒരു അലങ്കാരവസ്തുവല്ല അത് നമ്മടെ തലയെ സംരക്ഷിയ്ക്കാനുള്ള സംഭവമാണ് അത് പലരും മടി കാരണം വെയ്ക്കാറില്ല അത് ബൈക്കിന് പോരെ എന്തിനാ സൈക്കിളിനൊക്കെയൊരു ഹെൽമെറ്റ് അതല്ല അത് വീണ് കഴിഞ്ഞാൽ ബൈക്ക് ആണോ സൈക്കിൾ ആണോയെന്നെന്നും നോക്കില്ല വീണാൽ തല കേട് വരും പിന്നെ ആയൂഷ്ക്കാലത്തേയ്ക്കായി അപ്പോൾ ആദ്യം നല്ലൊരു ഹെൽമറ്റ് വാങ്ങുക പിന്നെ പറ്റണയിടത്തോളം ഇരുട്ടത്ത് സഞ്ചരിയ്ക്കാതിരിക്കുക കാരണം സൈക്കിൾ പറഞ്ഞാൽ ചെറിയൊരു വണ്ടിയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വലിയൊരു കാറോ ഒന്നും വന്നാൽ കാണില്ല ഇനി അഥവാ രാത്രി ഓടിക്കുകയാണെങ്കിൽ തന്നെ ഹെൽമെറ്റ് പിന്നെ ഓടിയ്ക്കണ ഡ്രസ്സ് നല്ലൊരു റിഫ്ലെക്റ്റീവ് ഡ്രെസ്സായിട്ട് ഇടുക അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നേയും ഒഴിവാക്കാം പിന്നെ കുറേ ദൂരം യാത്ര ചെയ്യുന്ന സൈക്കിൾ യാത്രയ്ക്കൊക്കെ ആണെങ്കിൽ വെള്ളം കൈയ്യിൽ കരുതുക കാരണം നമ്മൾ അറിയില്ല ഡീഹൈഡ്രേറ്റ് ആവണത് അത് എല്ലാം പോയി കഴിഞ്ഞ് തളർന്ന് വീഴുമ്പോഴാണ് അറിയുക നമ്മള് ഡീഹൈഡ്രേറ്റ് ആയി എന്ന് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിയ്ക്കേണ്ട ഒരു കാര്യം പിന്നേ പിന്നെ പേടിക്കേണ്ടത് മറ്റു വലിയ വണ്ടികളാണ് അവര് നമ്മളെ കാണില്ല അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മള് ഒരു ചെറിയ വണ്ടിയല്ലേ അപ്പോൾ നമ്മളെ കാണില്ല അപ്പോൾ ബാക്കിയുള്ളവരെ ആകർഷിക്കും വിധത്തിലൊരു ഡ്രെസ്സോ എങ്ങനെയെന്ന് വെച്ചാൽ ആ അത് നോക്കാം ഇതൊക്കെയാണ് സൈക്കിൾ ഓടിച്ച് തുടങ്ങുന്നവർക്ക് സാധാരണ സംഭവിയ്ക്കുന്ന ചില തെറ്റുകൾ പിന്നെ വണ്ടിയിലെ ടയറ് ടയറ് ടയറിൻ്റെ ഗുണമേന്മ നോക്കുകയാണ് അതിൽ അത്യാവശ്യം കാറ്റില്ലേയെന്ന് നോക്കുക പിന്നെ കറക്റ്റ് ആയി മൈൻ്റെനൻസ് നോക്കുക ഇതൊക്കെയാണ് മെയിൻ ആയി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നിയമം ഞാൻ ഇപ്പോൾ പറഞ്ഞതു പോലെ തന്നെ ഹെൽമറ്റ് പിന്നെ ജാക്കറ്റ് പിന്നെ സൈക്കിൾ ആയതുകൊണ്ട് ഏതു വഴീക്കൂടെയും പോവാം എന്നൊരു വിചാരം ഉണ്ടാവും അത് വേണ്ട നമുക്ക് പറ്റണയിടത്തുകൂടെ മാത്രം പോവുക

എന്തും കാണിക്കാം എന്നൊരു വിചാരം ഉണ്ടാവും അത് വേണ്ട അത് ശരിയല്ല അത് നമ്മളെ ആപത്തിലേയ്ക്ക് നയിക്കും ഈ സൈഡ് വക്കിൽ കൂടെ പോകുക നമുക്കായിട്ടോരോ ചില രാജ്യങ്ങളില് സൈക്കിൾ ഓടിക്കാൻ നമുക്കായിട്ടോരോ ഇതുണ്ട് അതിലേ തന്നെ മാത്രം വണ്ടി ഓടിക്കുക പിന്നെ ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം നമ്മള് നമ്മളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് സൈക്കിളാണ് പറഞ്ഞ് ഓവറായി കാണിക്കാൻ പോയാൽ നമ്മള് തന്നെ അനുഭവിക്കേണ്ടി വരും ഓരോന്ന് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെതായ പോലെ ചെയ്യുക പിന്നെ പറയാനുള്ളത് സൈക്കിളിലെ ആ ചെയിനിന്റെ മെയിൻ്റെനൻസ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചളി തെറിക്കണത് ചെയിനിലേക്കാ അപ്പോൾ അത് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും